ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു ഉത്സവമാണ് ചിനക്കത്തൂർ പൂരം മലയാള മാസം കുംഭ മാസത്തില് ഒരു പ്രത്യേക ദിവസമാണ് പൂരം നടക്കുന്നത് ഒരു പത്ത് ദിവസം മുമ്പ് തന്നേ പൂരത്തിന് പത്ത് ദിവസം മുമ്പ് തന്നേ ആഘോഷങ്ങളൊക്കേ തുടങ്ങും ഈ പത്ത് ദിവസം മുമ്പ് തന്നേ അമ്പലങ്ങ അമ്പലത്തില് ഓരോരോ ഒരു ദിവസം ഓരോ പരിപാടികളെക്കേയിട്ടിങ്ങനെ കണ്ടക്റ്റ് ചെയ്ത് നടത്താറ്ണ്ട് പിന്നെ അവസാനത്തേ രണ്ട് ദിവസമാണ് മെയ്നായിട്ട് പൂരം നടക്കുന്നത് ഇതില് പൂരത്തില് മെയ്നായിട്ടുള്ളത് ആന പൂരവും പിന്നേ കുതിരകളിയും പിന്നേ തേര് കളിയുവാണ്

ഈ പൂരം നടത്തുന്നതിന് മെയിൻ ഉദ്ദേശമെന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ആളുകളൊക്കെ എപ്പോഴും പണിക്ക് പോകുന്നതും പാടത്ത് പണിയൊക്കേ കഴിഞ്ഞ് ഒരു ദിവസം എല്ലാവരും പണികളൊക്കേ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാനും അത് ആഘോഷിക്കാനും വേണ്ടിയിട്ടാണ് പൂരം കണ്ടക്റ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അതങ്ങനെ തന്നേ നിലനിർത്തി കൊണ്ട് വരുവാണ് പിന്നേ എല്ലാ മതത്തിലുള്ളവരും വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസായാലും മുസ്ലിംസായാലും എല്ലാവരും പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട് ഈ പരിപാടി നടത്തുമ്പോൾ നമ്മളും ഇപ്പോൾ ഓരോ ദേശത്ത് നിന്ന് ആയിട്ടാണ് ഓരോ പരിപാടികള് അമ്പലത്തിലേട്ട് കൊണ്ട് വരിക അപ്പോൾ ഞങ്ങൾടെ ദേശത്ത് നിന്ന് നടത്തുന്ന പരിപാടില് ഞങ്ങള് അതിൻ്റെ കൂടെ പങ്കെടുത്ത് പോകുവാണ് ചെയ്യാറ് നമ്മള് അപ്പോൾ അവരുടേ കൂടേയിരിക്കും